എനിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നാലഞ്ച് സ്ഥലങ്ങളെ ഉള്ളൂ വേളാങ്കണ്ണി ലൂർദ് വത്തിക്കാൻ ഇസ്രയേൽ ഇസ്രയേൽ എന്നു പറയുകയാണെങ്കിൽ ഒരു പുണ്യ സ്ഥലമാണ് ആരും പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈശോയുടെ ജനനം മുതൽ മരണം വരെ ഉള്ള കാര്യങ്ങളാണ് ഇസ്രയേലിൽ അതുകൊണ്ട് ഇസ്രയേലിൽ പോകാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലുള്ളതാണ് മലയാറ്റൂർ ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് ഭാരതത്തിൽ വരികയും ഏഴര പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു അതിൽ ഒരു പള്ളിയാണ് മലയാറ്റൂർ പൊന്നും കുരിശ് മുത്തപ്പനാണ് നമ്മുടെ അവിടുത്തെ പ്രത്യേകത പൊന്നിൽ തീർത്ത ഒരു വലിയ കുരിശാണ് അവിടെയുള്ളത് അതുപോലെ തന്നെ തോമസ്ലീഹയുടെ കാൽപാദവും ഒരിക്കലും വറ്റാത്ത ഒരു കിണറും ഉണ്ട് അമ്പത് നോമ്പ് നമ്മൾ നോക്കിയാണ് നമ്മൾ മലകയറുന്നത് അതുപോലെ വേളാങ്കണ്ണിയിലും ലൂർദ് മാതാവും പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളാണ് ഈ പുണ്യ സ്ഥലങ്ങളിലൊക്കെ പോകാൻ നല്ല ഒരു ഉത്സാഹമാണ്